ഇന്നത്തെ കാലത്ത് സ്ത്രീകളുടെ പങ്ക് മാറിയിട്ടുണ്ട് പിന്നെ ജോലിക്കും വിദ്യാഭ്യാസത്തിനായിട്ടും ഇന്ന് പിന്നെ വേറെ സ്ഥലങ്ങളിൽ പോകാൻ സ്വാതന്ത്ര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുക കാരണം എന്നു വെച്ചാൽ ഇന്ന് നൂറിൽ എയ്റ്റി പേർസെൻ്റേജ് സ്ത്രീകളും പുറത്തേക്ക് ജോലി നോക്കുന്നവരും പുറത്തേക്ക് പഠിക്കാൻ പോകുന്നവരുമാണ് പുറത്തേക്കായിട്ടു തന്നെ അവർ അത് അതിനനുസരിച്ച് ക്ലാസ് കോഴ്സ് ചൂസ് ചെയ്യലും അങ്ങനെ തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിൽ വളർന്ന് വരുന്ന പെൺകുട്ടികൾ ചെയ്യുന്നത് അവർക്ക് സ്ത്രീകൾ ഇപ്പം നേരിടുന്ന വെല്ലുവിളികളെന്ന് വെച്ചാൽ ഇപ്പം എന്തായാലും സേഫ്റ്റി വേണം സെക്യൂറാവണം അങ്ങനെയൊക്കെ തന്നെയാണ് രാ പണ്ട് രാത്രി കാലങ്ങളിൽ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നതൊക്കെ അതെല്ലാം ഒരു ബുദ്ധിമുട്ടു തന്നെയാണ് അപ്പം അതിനനുസരിച്ചൊക്കെ കാലം മാറണം എന്നൊക്കെയാണ് പറയുന്നത്